മാംസം മാംസത്തില്നിന്നു നമുക്ക് മാംസം ഉണക്കി പിന്നെ വെയിലത്തുവച്ച് ഉണക്കി അത് വേവിച്ച് വെയിലത്തുവച്ച് ഉണക്കി അതിൽ നിന്നും നമ്മള് ഇടിയിറച്ചി ഉണ്ടാക്കി ഉണക്കി സൂക്ഷിക്കും അച്ചാറുകളിടും അങ്ങനെ മാംസത്തിൽ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ മുട്ട മുട്ട നല്ല ആരോഗ്യമുള്ള ഒരു സാധനമാണ് മുട്ട ഓംലേറ്റ് അടിച്ചും കുഞ്ഞങ്ങള്ക്ക് വറത്തുമൊക്കെ കൊടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് മുട്ടകൊണ്ട് പഫ്സ് ഉണ്ടാക്കാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം പിന്നെ പാല് പാലെന്നു പറഞ്ഞാലത് പാലു കൊണ്ട് പായസമുണ്ടാക്കും പിന്നെ പായസമുണ്ടാക്കി വില്ക്കാം പിന്നെ പാല് തൈരാക്കി തൈരിൽ നിന്നും വെണ്ണയെടുക്കാം വെണ്ണ നമുക്ക് ഒരു ഉപജീവനമാർഗമാണ് വെണ്ണ ഉണ്ടാക്കികൊടുക്കുന്നതും പാലും നമുക്ക് ഒരു ഉപജീവനമാർഗമാണ് പിന്നെ പേഡ മുട്ടായികളിൽ മിക്കതും പാല് ഉപയോഗിച്ചാണ് മുട്ടായികള് ഉണ്ടാക്കുന്നെ പാലിൽ നിന്ന് തന്നെ വെണ്ണയിൽ നിന്നും ബട്ടര് നെയ്യ് ചി ചീസ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അതിൽ നിന്നാണ് പനീര് പനീറുണ്ടാക്കി നമ്മളുപയോഗിക്കുന്നു പിന്നെ അങ്ങനെ ഉള്ള പല സാധനങ്ങളും പാ പാലിൽ നിന്നുമെടുക്കാം പിന്നെ പനീർ പാലുകൊണ്ട് പിന്നെ വിവിധങ്ങളായ ഉൽപന്നങ്ങള് അതുപോലെ തന്നെ പനീർ മസാ പനീർ മസാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ കമ്പിളി കമ്പിളിയിൽ നിന്നും കമ്പിളി ഉടുപ്പുകള് കമ്പിളിപ്പുതപ്പുകള് പിന്നെ കാ വാ അത് അതിൻ്റെ ഷോക്സ് കയ്യിലിടുന്ന ഒറ കുഞ്ഞുങ്ങൾക്ക് ഉള്ള തൊപ്പികള് മഫ്ളര് എന്നിവ കമ്പിളിയിൽ നിന്നും ചെയ്യുന്നു കമ്പിളിപ്പ് കമ്പിളിയിൽ നിന്നും അങ്ങനെയൊക്കെ വിവിധ ഡ്രെസ്സുകള് തണുപ്പത്തിന് ഇടാനുള്ള ഡ്രെസ്സുകളും ഷൂകളും എല്ലാമുണ്ടാക്കി ഉപയോഗിക്കുന്നു ഉപയോഗിക്കാൻ പറ്റും പിന്നെ കുഞ്ഞുങ്ങൾക്ക് തണുപ്പ് പിടിക്കാതിരിക്കാൻ ഉള്ള ഡ്രെസ്സുകള് അതായത് മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളെയെല്ലാം നല്ല കമ്പിളിപ്പുതപ്പിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാം അതുപോലുള്ള ചെറിയചെറിയ ഉടുപ്പുകളും കാര്യങ്ങളുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കാം അതാണ്